സഹോദരൻ ഉണ്ടോ എന്ന് ചോദിച്ചാൽ സഹോദരൻ ഉണ്ട് അപ്പം ഞാനും എൻ്റെ ചേട്ടനും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ പുള്ളിക്ക് എന്നെക്കാൾ ഒരുപാട് ചേട്ടനെ എൻ്റെ സഹോദരന് എന്നെക്കാൾ ഒരുപാട് വിവരം കൂടുതലാണ് എന്നെക്കാളും അറിവും കൂടുതലാണ് അതുകൂടാതെ തന്നെ എന്നെക്കാളും വളരെ അത് എന്നെ വെച്ചുനോക്കുമ്പോൾ ശക്തനാണ് അപ്പം പുള്ളി സഹോദരനെക്കാളും ഒരുപാട് ബല അതായത് എന്നെക്കാളും ഒരുപാട് ബലശാലനാണ് എൻ്റെ സഹോദരൻ അപ്പം ഒരുപാട് കാര്യങ്ങളിൽ ഞാനും എൻ്റെ സഹോദരനും തമ്മിൽ വ്യത്യാസങ്ങൾ ഉണ്ട് പിന്നെ ഞങ്ങൾ തമ്മിൽ വളരെ സ്നേഹത്തിലാണ് ഇപ്പം എന്നെ ശരിക്കും ഒരു സഹോദരനെക്കാളും ഒരു കൂട്ടുകാരനെ പോലെയാണ് കാണുന്നത് അപ്പം എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചേട്ടൻ ചെയ്തു തരാറുണ്ട് അപ്പം ചേട്ടന് വേണ്ടി ഞാൻ അത്രയും അങ്ങനെ നിൽക്കുന്നുണ്ട് എന്നാൽ ചേട്ടൻ എനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തുതരുന്നുണ്ട് നമുക്ക് ചേട്ടൻ അത്രയും നമുക്ക് വേണ്ടി നിൽക്കുമ്പോൾ നമുക്ക് ഒരിക്കലും മടുപ്പ് വിചാരിക്കാൻ പറ്റില്ല ചേട്ടൻ്റെ കാര്യത്തിന് അങ്ങനെ നിൽക്കാൻ ഞാനും ചേട്ടനും വളരെ സ്നേഹത്തിലാണ് ഹാപ്പി ആണ് ഞങ്ങൾ രണ്ടുപേരും